ഞങ്ങൾക്ക് സാധാരണ നല്ല ഒരു നല്ല ഒരു ദിവസം പ്ലസൻ്റായിട്ടുള്ള ഒരു ദിവസമാണെന്നു ണ്ടെങ്കിൽ ഞങ്ങൾക്ക് ട്വൻ്റി ഫോർ അവേഴ്സും നമുക്ക് വൈദ്യുതി കിട്ടുന്നുണ്ട് ഇനി എന്തെങ്കിലും സാഹചര്യം അവർ അതിൻ്റെ ലൈൻ കമ്പിയോട് ചേർ നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് മാറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് മാറ്റി ഇടുന്ന കാര്യങ്ങളോ നടക്കുകയാണെങ്കിൽ അവർ നമ്മളെ മെസ്സേജ് മുഖാന്തരം അറിയിക്കും അപ്പ അതിനുള്ള ഒരുക്കങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കാറുണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും ചിലപ്പം നമ്മൾ ഈ മെസ്സേജസ്സ് വരുന്നില്ല വരാതെ ഈ ചില സമയത്ത് മഴയും കാറ്റും ഒക്കെ നമ്മുടെ ഈ ഒരു പ്രദേശം എന്ന് വച്ചാൽ നമുക്ക് ഈ പ്രദേശത്തെന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്തു കഴിയുമ്പഴത്തേനും ഒന്നെങ്കിൽ മരച്ചില്ലകൾ ഒടിഞ്ഞ് റബറ് മര മരച്ചില്ലകൾ ഒടിഞ്ഞ് ലൈൻ കമ്പിയുടെ പുറത്ത് ഇങ്ങനെ വീഴാനും കരണ്ട് പോകാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്രാമ പ്രദേശത്താണ് ഇവിടെ നമ്മുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഗ്രാമം ഗ്രാമമാണ് അപ്പം നമുക്ക് ആ പ്രദേശത്ത് താമസിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് കരണ്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകും കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ മഴ ഇല്ലാതിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല പഷെ മഴ പെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മരങ്ങൾ ഇല്ലെങ്കിൽ ലൈൻ കമ്പികൾ കൂട്ടി മുട്ടി അങ്ങനെ ട്രാൻസ്ഫോമറിൽ നിന്ന് അങ്ങനെ കരണ്ട് പോകാനും പിന്നെ അങ്ങനെ ഒരുപാട് ഒന്ന് രണ്ട് ദിവസം കരണ്ടില്ലാതെ വരാനും ഒക്കെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ വെയിലാകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് യാതൊരു വക വിഷയവും വരാറില്ല മഴയ മഴ സമയത്താണെങ്കിൽ ചിലപ്പം നമ്മൾ മോട്ടർ അടിച്ചിട്ടുണ്ട് മഴ എപ്പോഴാണോ വരുന്നത് അല്ല മഴ എപ്പം പെയ്യും എന്ന് നമ്മൾക്ക് അറിയാൻ സാധിക്കില്ലല്ലോ അപ്പം മഴ പെയ്തു പെട്ടെന്ന് നമ്മൾ വീട്ടിലായിരിക്കില്ലാത്ത സമയത്ത് പുറത്ത് പോയിരിക്കുന്ന സമയത്താണ് മഴ പെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടാങ്കിൽ ഇപ്പം നമ്മള് രാവിലെ മോട്ടർ അടിച്ച് ഇടണമെന്ന് നിർബന്ധമില്ല നമ്മൾ ചിലപ്പം മറന്നു പോയിരിക്കാം അപ്പഴ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലപ്പം എവിടെയെങ്കിലും പോയിട്ട് വരുമ്പം ചിലപ്പം കരണ്ട് കാണത്തില്ല ചിലപ്പം അന്ന് രാത്രി ഫുള്ളും കറണ്ടും ഇല്ലാതിരിക്കും അപ്പം നമ്മൾക്ക് വെള്ളം കിട്ടാതെ വരികയും അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പം വീട്ടിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കറണ്ടിൻ്റെ ആവശ്യമുണ്ട് കറണ്ട് കിട്ടാതിരിക്കുകയും ചെയ്യും വെള്ളം ഒന്ന് മുഖ്യമായിട്ട് നമ്മൾക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമാണ് രണ്ടാമത്തെ നമ്മൾക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കരണ്ട് ഇല്ലെങ്കിൽ നമ്മൾക്ക് അരച്ചു എന്തെങ്കിലും കറി വയ്ക്കാനൊന്നുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകാറില്ല പിന്നെ അങ്ങനെ ഒരുപാട് പെട്ടെന്ന് ഇപ്പം രാത്രിയിൽ ഇപ്പം മഴ പെയ്തു കറണ്ട് പോയി രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികളെല്ലാം തീർത്തിട്ട് വേണം നമ്മൾക്ക് ഓഫീസിൽ പോവാൻ അപ്പം കരണ്ടില്ലാതെ വരുന്ന ഒരു സമയത്ത് വെള്ളം കറണ്ടില്ല മോട്ടർ അടിക്കാൻ നമ്മൾ തലെ ദിവസം മറന്നു പോയി അപ്പം അങ്ങനെയാണെങ്കിൽ ടാങ്കിൽ വെള്ളം കാണത്തില്ല വെള്ളമില്ലാത വരുമ്പം നമ്മൾക്ക് വീട്ടിലെ രാവിലെ എണീറ്റ് വീട്ടിലെ ഒരു കാര്യങ്ങളും ചെയ്യൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾക്ക് വെള്ളം വേണം അപ്പം കരണ്ട് രാത്രിയിൽ മഴ പെയ്തു കറണ്ട് പോയി എന്നിട്ട് നമ്മൾക്ക് പിന്നെ വെള്ളം നമ്മൾക്ക് പിന്നെ കരണ്ട് വന്നതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളു സാധിക്കാറുള്ളു അത്പോലെ വേറെ പ്രശ്നമെന്ന് പറഞ്ഞാൽ കറണ്ടില്ല നമ്മൾ കുഞ്ഞ് കുട്ടികളൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ കരണ്ടില്ലാതെ വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് പഠന കാര്യങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പഠിക്കാനായിട്ട് വെട്ടമില്ലാതെ അവർ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഈ പരിസരത്ത് ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകാറുമുണ്ട് ബാക്കി കറണ്ട് മുഖാന്തരം പിന്നെ ഒരുപാട് ഈ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒരുപാട് പേരെ വീടുകളിൽ വീടുകളിൽ കരണ്ടില്ലാതെ ഇരിക്കുമ്പോൾ കത്താനുള്ള ലൈറ്റുകളും കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഒരു ഒത്തിരി ഒത്തിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദാരിദ്ര്യ ദാരിദ്ര്യ രേഖ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് അതിന് സാധിക്കാതെ വരുന്നുണ്ട് മഴ മഴ മഴ പെയ്യുന്ന സാഹചര്യം ഒഴിച്ചാൽ ബാക്കിയുള്ള സാഹചര്യങ്ങളിൽ എല്ലാം നമുക്ക് കരണ്ടിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ വലുതായിട്ട് ഉണ്ടാവാറില്ല